ഞങ്ങളുടെ അടുത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന് പറയുന്നത് കുമരകമാണ് അവിടെ കുമരകത്ത് ഹൗസ് ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിനോദസഞ്ചാരത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഏകദേശം രാവിലെ ഒരു ഒമ്പത് ഒമ്പതര മണിക്ക് തൊടങ്ങുകാണെങ്കിൽ ഹൗസ് ബോട്ടിൽ ഒരു നാല് നാലര വരെ ഏകദേശം അവർ മൊത്തം വേമ്പനാട്ടുകായൽ ഒരു തവണ ചുറ്റി വരും ചില യാത്രകളെന്ന് പറയുന്നത് ആലപ്പുഴ വരെയും ചില ബോട്ട് സർവീസുകളുണ്ട് തന്നെയല്ല നമ്മൾക്ക് തണ്ണീർമുക്കം ബണ്ട് ഒക്കെ വരെ ചുറ്റിയാണ് ഈ ബോട്ട് സർവീസ് ഉള്ളത് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ വരെ ഒക്കെ ഒരു ദിവസത്തേക്ക് ചിലവുണ്ടാവും പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ അവർ അവിടെത്തന്നെ കുക്ക് ഒക്കെ ഉണ്ട് അവരെല്ലാം സ്വന്തമായിട്ട് പാചകം ചെയ്ത് നമുക്ക് തരും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ബോട്ട് ഒക്കെ നമ്മൾ അവിടെത്തന്നെ ഫിഷിങ് നമുക്ക് ചെയ്തു കരിമീനൊക്കെ പിടി പിടിക്കാനൊക്കെ നമുക്ക് സാധിക്കും ആ നമുക്ക് അവിടെ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് പിടിച്ചത് തന്നെ അവർ നമുക്ക് കുക്ക് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാനോക്കെ തരും പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാവും വൈ നാലുമണിക്ക് ഫുഡ് ഉണ്ടാവും അങ്ങനെ നമുക്കൊരു ഫുള് ഡേ ഫുൾ എൻറ്റർടൈൻമെന്റ് ആയിരിക്കും പിന്നെ ഏ സി റൂംസ് അങ്ങനെയെല്ലാം ഈ ബോട്ടിൽ അവൈലബിൾ ആയിരിക്കും